ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് എന്താ പറയുക തെറ്റ് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു മറവി അങ്ങനെന്തങ്കിലും ഒക്കെ പറയാൻ പറ്റുള്ളൂ തെറ്റായിട്ട് കണക്കാക്കാൻ പറ്റില്ല അതായത് എന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മടെ കോൾഡ് സ്റ്റോറേജ് റൂമിനകത്ത് വേറെ രണ്ട് ഏട്ടന്മാരുണ്ടാരുന്നു ഞാനും വേറെ രണ്ട് ഏട്ടന്മാരുണ്ടാരുന്നു അവര് പുറത്തോട്ട് പോയി അപ്പോൾ അവർക്ക് അറിയാണ്ട് അത് കോൾഡ് സ്റ്റോറേജ് റൂമിൻ്റെ ടെമ്പറേച്ചറ് സെറ്റ് ചെയ്യാൻ നോക്കിയതാണ് ഞാന് ആ സമയത്ത് സംഭവം മൈനസിന് പകരം മൈനസ് ഡിഗ്രിലാരുന്നു വെയ്ക്കേണ്ടത് മൈനസ് നാല് ഡിഗ്രീല് വെയ്ക്കണേന് പകരം നാല് ഡിഗ്രില് വെച്ചു അപ്പോൾ സംഭവം എന്തായീ വെച്ചെയ്യാ അത് ചൂട് അതായ അവിടെ ഉണ്ടായിരുന്ന ഐസ് ക്രീമിൻ്റെ സാധനങ്ങളൊക്കെ ഏകദേശം മെൽട്ട് എന്ന രീതീലേക്കായി കട്ടിയുള്ള ഇതില് ഇരിക്കണതിന് പകരം സംഭവം എല്ലാം മെൽട്ട് ആകാൻ തുടങ്ങി ഞാൻ ഒര് അര മണിക്കൂറ് കഴിഞ്ഞു വന്നു നോക്കുമ്പഴേക്കും ഏകദേശം എല്ലാം മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഏട്ടനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അപ്പം ഏട്ടൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട കുഴപ്പമില്ല നമുക്ക് റെഡി ആക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അവിടുത്തെ ആ മെൽറ്റായത് ഭാഗം ഒക്കെ കുറെ ഒക്കെ മാറ്റി വേറെ സ്ഥലത്തേയ്ക്ക് വെച്ചു എന്നിട്ട് അതായത് കൂടുതലിനി മെൽറ്റായത് അവടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉള്ളത് കൂടെ മെൽറ്റ് ആവണ്ട പറഞ്ഞിട്ട് അതക്കെ മാറ്റി വേറെ സ്ഥലത്ത് വെച്ചിട്ട് ടെമ്പറേച്ചർ കുറച്ചും കൂടെ കമ്മി ആക്കി ഇട്ടു അതായത് മൈനസ് നാലിന് പകരം ഒരു മൈനസ് എട്ടൊക്കെ ഇട്ടു വെച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടു കൂടി ആ മെൽറ്റ് ആയതൊക്കെ ഏകദേശം ശരി ആയി പക്ഷെ അതിൻ്റെ ഷേയ്പ്പ് ഒക്കെ കുറച്ച് മാറ്റം വന്നു എന്നാലും വലിയ കംപ്ലെയിന്റ് ഇല്ലാണ്ട് അത് സപ്ലൈ ചെയ്യാനും കാര്യങ്ങളക്കെ പറ്റി